ഞാൻ ചിത്ര രചന അങ്ങനെ പഠിച്ചിട്ടില്ല ഞാൻ പടം വരക്കുന്നുവെന്നേ ഉള്ളൂ അങ്ങനെയൊരു ചിത്രകലാകാരനോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ വിശ്രമ വേളകളിൽ ചുമ്മായിരിക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പഴേലും നമ്മൾ കൂട്ടുകാരെ വർത്താനം പറയുമ്പോൾ ചുമ്മാ പേനയെടുത്ത് അല്ലെങ്കിൽ പെൻസിലും കുത്തി വരയ്ക്കാറ് മാത്രമാണ് അതിങ്ങനെ വരച്ച് വരച്ച് നമ്മൾ പിന്നെ അതൊരു ചെറിയൊരു പടമായി അതങ്ങനെ നമ്മളൊരു കലാകാരനായി മാറുകയാണ് അതിനെ ശരിക്കും ചിത്ര രചനാ മത്സരങ്ങളിലങ്ങനെയൊന്നും പങ്കെടുക്കാറില്ല പിന്നെ സ്കൂളുകളിലാണെങ്കിലും ചിത്ര രചനാ മത്സരങ്ങൾ വരുമ്പോൾ പങ്കെടുക്കും ചില സമയങ്ങളിൽ നമുക്ക് ഫസ്റ്റ് കിട്ടും അല്ലെങ്കിൽ ചില സമയങ്ങൾ സെക്കൻ ഗ്രേഡ് കിട്ടും അങ്ങനെ ഒരു കലാകാരനായിട്ട് അറിയപ്പെടാൻ എന്നുള്ള ഒരു കഴിവൊന്നും ഇല്ല നമ്മൾ ചില ചില ചിത്രങ്ങൾ നോക്കി വരയ്ക്കും അതുപോലെത്തന്നെ നമ്മുടെ മനസ്സിലുള്ള ഒരു ചില ഐഡിയകൾ നമ്മൾ ചിത്രമായിട്ട് വരയ്ക്കുമെന്ന് മാത്രമേ ഉള്ളു നമ്മളങ്ങനെ ഒരു ചിത്ര കലാകാരനായിട്ട് ഒരു കണക്കാക്കപ്പെടാൻ പറ്റുന്ന ഒരാളല്ല